ഹലോ ആ ആ ആ ജുവല്ലറി അല്ലേ ഇത് ആ ഞങ്ങൾക്ക് ഒരു പവൻറെ ഒരു മാല വേണമായിരുന്നു കേട്ടോ

ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നൂലുകെട്ടിനു വേണ്ടിയിട്ടാണ് ആണാണ് ആണ് മെഷീൻ കട്ടിങ് ആണേ ദേഹത്തൊന്നും കൊള്ളാത്ത ടൈപ്പിലുള്ള ആ ആ ശരി ശരി ആ അല്ല ഒരു ലോക്കറ്റും കൂടി വേണേ ആ രണ്ടിനും കൂടെ ഒരു പവൻ മതി

ഓ ഓ അതെ മ് അത് ഇല്ല വേണ്ട തൽക്കാലം ഇത് മാത്രം മതി

ഞങ്ങൾ നാളെ വൈകുന്നേരം വരാം അഞ്ചുമണിയൊക്കെയാകുമ്പോൾ എത്തും

ഓക്കെ ഓക്കേ ഓ ശരി ശരി ഞങ്ങളിറങ്ങുമ്പോൾ വിളിക്കാം ഓക്കെ മ് ശരി